ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് ഏഴ് ഒന്ന് രണ്ടായിരത്തി ആറ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് ഏഴ് രണ്ടായിരത്തി മുപ്പത്തെട്ട്